ഹലോ

ആ ആ അതേ ആരാണിത് ആ എന്തായിരുന്നു നിങ്ങളുടെ പേരെന്തായിരുന്നു ആ ആ എന്ത് പറ്റിയതാണ് ആണോ എന്ത് വണ്ടിയിൽനിന്നാണ് വീണത് ബൈക്കോ സ്കൂട്ടി ആ ആ

അപ്പോൾ കാണിച്ചില്ലായിരുന്നോ വീണ സമയത്ത് ആ ആ ഇപ്പോൾ ബുദ്ധിമുട്ടെന്താണ് ആണോ അവിടെ നീര് വെച്ചിട്ടോ അങ്ങനെ എന്തേലും ഉണ്ടോ ആണോ ഐസ് ക്യൂബ് അങ്ങനെ എന്തെങ്കിലും വെച്ച് വെച്ച് നോക്കിയായിരുന്നോ

ആ വീണ പാട് നമ്മൾ ആദ്യം ചെയ്യെണ്ടത് അതാണ് കെട്ടോ തണുത്ത എന്തെങ്കിലും എടുത്ത് വെച്ച് എവിടെ വേദന ഉള്ള സ്ഥലത്ത് കുറച്ച് നേരം അമർത്തി പിടിച്ചാൽ എന്തെങ്കിലും ഒരു തുണിയിലോ തുണീൻ്റെ ഉള്ളിലൊക്കെ ഐസ് ക്യൂബ് വെച്ച്ക്കാണ്ട് കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കൊടുക്കുക ആണ് വേണ്ടത് ഇപ്പോൾ എന്നാണ് എന്നാണ് വീണത് ഇന്നലെ ഇന്നലെ എപ് എപ്പോഴാണ് ആ ആ എവിടെയാണ് സ്ഥലം എവിടെയാണ് വീങ്ങപുഴ ആണ് അല്ലേ ആ ഞാൻ ഞാൻ മുക്കത്താണുള്ളത് കോഴിക്കോട് മുക്കം വാണ വന്നാൽ കാണാനൊക്കെ പറ്റും ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഐസ് ക്യൂബ് എന്തെങ്കിലും ഒരു തുണിയില് വെച്ചിട്ട് കുറച്ച് നേരം തലയില് പ്രെസ്സെയ്ത് പിടിക്കുക എന്നിട്ട് കുറയുന്നുണ്ടോ ഇല്ലയോന്നൊന്ന് നോക്കുക ഇല്ലെങ്കില് വന്നിട്ട് സ്കാൻ ചെയ്യണം ആം ആ തലേൻ്റെ പ്രശ്നമല്ലെ അതുകൊണ്ട് സ്കാന് ചെയ്യണം സ്കാൻ ചെയ്ത് നോക്കിയാലേ എന്തെങ്കിലും പറയാൻ പറ്റൂളളൂ എന്തെങ്കിലും ഫ്രാക്ച്ചറോ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണ്ടേ ആ അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം ആ ബുക്കെയ്യണം ഈ നമ്പറില് ബുക്കെയ്താല് നേരെ വന്നാൽ മതി നേരെ വന്ന് സ്കാൻ ചെയ്യാവുന്നതാണൂട്ടോ ഓക്കേ ഓക്കേ ആ നാളെ രാവിലെ വന്നോളുട്ടോ ഓക്കെ ആ ബുക്കെയ്യണം ഈ നമ്പറില് ബുക്കെയ്താൽ മതീട്ടോ ഓക്കേ എന്നാൽ ശരിട്ടോ